കേരളത്തിൽ ധാരാളം ഉത്സവങ്ങൾ നടക്കാറുണ്ട് അതിൽ പ്രധാനമായും മലയാളികൾ ആഘോഷിക്കുന്നത് ഒന്ന് ഓണം ഓണം കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണെങ്കിലും ഹിന്ദു വിഭാഗത്തിൽപെട്ട ആളുകളാണ് പൊതുവേ അത് കൂടുതലായി ആഘോഷിക്കാറുള്ളത് പിന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയിടയിൽ ക്രിസ്മസ് ഈസ്റ്റർ ദുഃഖവെള്ളി മുതലായ തുടങ്ങിയ ആഘോഷങ്ങൾ ആചരിക്കാറുണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ പൊതുവേ ഈദുൽഫിത്തർ നബിദിനം ഇങ്ങനെയുള്ള ആഘോഷങ്ങളാണ് നടത്താറുള്ളത്